കേരളത്തിലെ മറ്റു ജില്ലകളെ അപേഷിച്ച് വയനാട് ജില്ലയിലെ കാലാവസ്ഥ എന്നു പറഞ്ഞാൽ എന്തുകൊണ്ടും തീര്ത്തും അവിടെ ജീവിക്കുന്ന ആളുകള്ക്ക് അനുയോജൃമായ ഒരു കാലാവസ്ഥയാണ്

വെയിൽ ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് എന്തുകൊണ്ടും ജനങ്ങള്ക്ക് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് വയനാട്ടിലുള്ളത്

ജീവിത്തത്തിൽ ജോലിയിലോ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ടാവും കാരണം പ്രളയത്തിന്റെ സമയത്ത് നമ്മൾക്ക് ജോലികൾ കുറവായിരിക്കും എന്നത് ഒരു പ്രതൃേകത തന്നെയാണ്

കേരളത്തിൽ പുറത്തായാലും ശരി ഏതൊരാള്ക്കും വയനാട് ജില്ലയിൽ വന്നു താമസിക്കാന് യാതൊരു പേടിയും വേണ്ട കാരണം അത്രയ്ക്കും കംഫോര്ട്ടും ഏതൊരാള്ക്കും പെട്ടെന്ന് അനുയോജൃമായ ഒരു കാലാവസ്ഥയാണ് വയനാട് ജില്ലയ്ക്ക് ഉള്ളത് എന്നതാണ് സത്യം